എൻ്റെയൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്നും അതായത് മൊബൈല് ഫീഡുകളായിക്കോട്ടെ റേഡിയോകളായിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ ഒന്നും നമുക്ക് സത്യസന്ധമായ വാർത്തകൾ നൽകുന്നില്ല കാരണം അവര് ഞാൻ പറഞ്ഞല്ലോ അവരിപ്പോൾ ഈ ന്യൂസ് ചാനലിൻ്റെ മാതിരി തന്നെയാണ് ഇപ്പോൾ അവരൊരു കേസ് ഒരു ഒരു ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ന്യൂസ് എന്താ പറയുക അവരായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമുക്ക് ന്യൂസ് പേപ്പറിലായിക്കോട്ടെ മൊബൈൽ ഫീഡിലായിക്കോട്ടെ അല്ലെങ്കിൽ റേഡിയോകളിലായിക്കോട്ടെ നമുക്ക് തരുന്നത് അപ്പോൾ അതൊരിക്കലും ഉചിതമായ ഒരു കാര്യമല്ല അതിൽ സത്യസന്ധത ഒരിക്കലും പുലർത്തുന്നില്ല മൊബൈൽ ഫീഡുകളായിക്കോട്ടെ ഇപ്പോഴൊരു ന്യൂസ് കിട്ടി ഇപ്പോൾ ഏക്സാമ്പിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആക്റ്ററിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആക്റ്റർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആക്റ്ററിനെപ്പറ്റീട്ട് ഈ കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളതാണ് ഈ മൊബൈൽ ഫീഡുകളിലൊക്കെ വരുന്നത് റേഡിയോകളായിക്കോട്ടെ നമുക്ക് സത്യസന്ധത പറയാൻ പറ്റില്ല എന്നല്ല പക്ഷേ റേഡിയോകളിലും നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ട് ഒരിക്കലും ന്യൂസ് പേപ്പറിനെ ഒരിക്കലും സത്യസന്ധമായി കാണാൻ പറ്റില്ല കാരണം അവര് അവര് എപ്പോഴും മാർക്കറ്റിനെ മാത്രമേ നോക്കുന്നുള്ളൂ കാരണം അവർക്ക് ന്യൂസ് പേപ്പറാണെങ്കിൽ പരസ്യങ്ങൾ വേണം അപ്പോൾ പരസ്യങ്ങൾ ഇറക്കണമെങ്കിൽ നല്ല നല്ല കണ്ടെന്റ് അതില് കൊടുക്കണം അപ്പോൾ ആ കണ്ടന്റ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റം വരുത്തുവാനുള്ള കഴിവ് വേണം അപ്പോൾ അവരക്കാ കഴിവുണ്ട് അവര് ആ കണ്ടന്റ് മാറ്റീട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാല് ആ കേസില് എന്താ പറയുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആക്സിഡന്റിനെ വലിയൊരു ആക്സിഡന്റാണെങ്കിൽത്തന്നെ ആ ആക്സിഡന്റ് നമുക്ക് പൊളി പൊളിറ്റിക്കലാക്കി മാറ്റിയിട്ട് അങ്ങനെ ഒരു വിപുലീകരിച്ചിട്ട് അല്ലെങ്കിൽ പൊലിപ്പിച്ചിട്ടും മാറ്റങ്ങൾ വരുത്താൻ ഈ ന്യൂസ് പേപ്പറിന് സാധിക്കും കൊടുക്കുന്ന ആൾക്കാർക്ക് സാധിക്കും അതുകൊണ്ടുതന്നെ ഒരിക്കലും ഈ മൂന്നെണ്ണം ഒരിക്കലും സത്യസന്ധത പുലർത്തുന്നില്ല